കാഴ്ചയിലെ പരിമിതി ഉള്ളവരും അല്ലെങ്കിൽ പ്രായമായവർക്കും ഒരു പരിധി വരെ പിന്നെ എന്തുവേണം ഈ ടെസ്റ്റ് സ്പീച്ച് രൂപത്തിലേക്ക് ആക്കിയത് കൊണ്ട് അവർക്ക് ഫോണിൻ്റെ ഉപയോഗം വളരെ എളുപ്പമായിട്ടുണ്ട് അല്ലെങ്കിൽ ഫോണ് അവരുടെ ജീവിതം കുറച്ച് കൂടെ എളുപ്പത്തിലാക്കാനായിട്ട് സഹായിച്ചിട്ടുണ്ട് വളരെ പ്രത്യേകിച്ച് കാഴ്ച വൈകല്യമുള്ളവരെ അവർക്ക് ടൈപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ വായിക്കാനോ അതിനൊന്നും സാധ്യത ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ അവർക്ക് സ്പീച്ച് വിവർത്തനം സ്പീച്ചിലോട്ട് വിവർത്തനം ചെയ്യപ്പെടുന്നത് വളരെ എളുപ്പമാക്കിയിട്ടുണ്ട് അവരുടെ എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് ഒരു നല്ല പരിധി വരെ ഈ സ്മാർട്ഫോണുകളുടെ ഉള്ള ഈ ഒരു വിവർത്തനം ചെയ്യപ്പെടുന്ന രൂപത്തിലേക്ക് ആക്കിയത് അങ്ങേയറ്റം സഹായിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് കണ്ടിട്ടുമുണ്ട് നമ്മൾ തന്നെയാണ് ഇത് ഇപ്പം എൻ്റെ ഒരു പ്രായത്തിലൊക്കെയുള്ളവർ ടൈപ്പ് ചെയ്യാനായിട്ട് സ്ലോ ആയിട്ടുള്ളവർ വോയ്സിലേക്ക് രൂപത്തിലേക്ക് വരുന്നത് എൻ്റെ വോയിസ് രൂപത്തിൽ മെസ്സേജുകൾ പാസ് ചെയ്യുന്നത് എളുപ്പത്തിൽ സാധ്യമാകുന്നു